അതെ അതെ അതെ പറഞ്ഞോളു

ഇതിനു മുന്നെ എവിടെ എങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ ആ ഹ എവിടെ

നിലവിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നതാണോ

കഴിച്ചിട്ട് വലിയ മറ്റമൊന്നും ഇതുവരെ തോന്നിയില്ല എന്തെങ്കിലും ടെസ്റ്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടറ് എന്തെങ്കിലും ചെയ്യിച്ചായിരുന്നോ

അതിൻ്റെ റിസൽട്ട് ഒക്കെയോ ആ അതൊന്ന് എനിക്ക് അയച്ചു തരാമോ ഇപ്പം പറഞ്ഞു കേട്ടിട്ട് ഇതിനു മുന്നെ അത് ഏത് മരുന്നാണ് കഴിച്ചു കൊണ്ടിരുന്നത് എന്തൊക്കെയാണ് കാണിച്ചതെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ അപ്പം അതിയിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഞാൻ അപ്പം ഒന്നും നോക്കാതെ മരുന്ന് എഴുതി തന്നിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോയിക്കഴിഞ്ഞാൽ അതും എൻ്റെ തലയിലാവില്ലേ പറ്റിയാൽ അടുത്ത ദിവസം ക്ലിനിക് ഒഴിവുള്ളപ്പം വിളിച്ചു ബുക്ക് ചെയ്തിട്ട് വന്നു കാണിച്ചാൽ കുറച്ചു കൂടെ നന്നായിരിക്കും മ്മ് പിന്നെ കുറെ ദിവസമായോ തുടങ്ങിയിട്ട് നേരത്തെ കൊണ്ടു വന്നു കാണിക്കേണ്ടായിരുന്നോ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവും തോന്നുന്നില്ല ആ ഹ ഹ ഹ എന്തായാലും അടുത്ത ദിവസം എന്തായാലും ക്ലിനിക്കിൽ കൊണ്ടു വന്നു കാണിക്കുക താക്കോൽ എൻ്റെലിണ്ട് അത് ഇവിടെ പറഞ്ഞതാണ്

മോനെ വെള്ളത്തിൽ കളി കുറയ്ക്കെടാ അതിൻ്റെ ചിലപ്പോൾ വളം കടിയായിരിക്കും ഞാൻ എന്തായാലും നല്ല ഒരു ഓയിന്മെൻ്റ് എഴുതുന്നുണ്ട് അത് മേടിച്ചു തൂക്ക് കുറഞ്ഞോളൂട്ടോ ആ എന്നാൽ അടുത്ത ദിവസം ക്ലിനിക്കിൽ വന്നു കാണിക്കുക